വയനാട് ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഉത്സവങ്ങളാണ് ഉത്സവങ്ങൾ പല പ്രദേശത്ത് പല ഉത്സവങ്ങൾ നടക്കാറുണ്ട് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉത്സവം വള്ളിയൂർകാവ് തന്നെയാണ് വള്ളിയൂർകാവ് ഇത്രയുമധികം അറിയപ്പെടാൻ കാരണം ആ അവിടുത്തെ അവിടുത്തെ ഒന്നാമത് ഈ പാർക്ക് പോലെയുള്ള സംവിധാനം തന്നെയാണ് അതുപോലെ തന്നെ കടകൾ ബജ്ജികൾ ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് അതുപോലെതന്നെ പലവിധം തിറകളുണ്ട് ഓരോ അമ്പലത്തിൽ തിറകളുണ്ട് ഇത് മെയിനായിട്ട് വരുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ തിറകളും അതുപോലെ തന്നെ അമ്പലത്തിലെ ഉത്സവങ്ങളും വരുന്നത് പിന്നീട് വരുന്നത് ഒരു കാളൻ കപ്പ് ഫുട്ബോൾ ടൂണമെൻ്റുണ്ട് അപ്പഴും പലവിധ കോളേജുകളിലും ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പല കുട്ടികളും വരുന്നു ഏറ്റവും കൂടുതൽ വയനാട്ടിൽ അറിയപ്പെടുന്നത് ഉത്സവങ്ങൾ മാത്രമാണ് ഉത്സവ സമയത്ത് എല്ലാരും കൂടി ഒത്തുചേരുന്നു ലക്ഷകണക്കിനാളുകളാണ് ഒരു ഉത്സവത്തിന് വരുന്നത് പിന്നീട് പൂപ്പൊലി നടക്കാറുണ്ട് അത് കൽപ്പറ്റയിലാണ് പൂപ്പൊലി നടക്കാറ് അതൊരു ഫ്ലവർ ഷോയാണ് അപ്പഴും എല്ലാവരും ഒത്തുചേരാറുണ്ട്